ആ ഹലോ ആ അതെ അതെ പറയൂ മേഡം യ്യോ മാഡം ഇത്രയും നേരം കണ്ണെക്ടഡ് ആയിരുന്നു ഒന്നുംകൂടെ ചെക്കേയ്യോ മാഡം വെയിറ്റ് ചെയ്യുമോ ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ എന്താ പ്രശ്നം എന്ന് സോറി മേഡം ഞങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം രണ്ട് മണിക്കൂറ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മാഡം മനസിലാകും ഞങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അത് റെഡിയാകാതെ ഇപ്പോൾ അല്ല മാഡത്തിന് അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാനെൻ്റെ പേസണൽ ഹോട്ട്സ്പോട്ട് ഞാൻ കണക്റ്റ് ചെയ്ത് തരാം എത്രയും പെട്ടെന്ന് ശരിയാക്കാം മാഡം ക്ഷമിക്കണം ഞാനിപ്പം എന്തായാലും മേഡത്തിന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഹോട്ട്സ്പോട്ട് കണക്റ്റ് ചെയ്യ് തരാം മാഡത്തിൻ്റെ റൂമിലേക്ക് ഞാൻ വരണോ അതോ മാഡം റിസെപ്ഷൻലോട്ട് വരുമോ ആ ഓക്കെ ഓക്കെ മാഡം ക്ഷമിക്കണം കേട്ടോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കാം ഇപ്പം ഇത് കൊണ്ട് ആ എത്രയും പെട്ടെന്ന് ചെയ്യാം മാഡം ഇപ്പം